ഞാൻ നേരിൽ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന താരങ്ങളെന്ന് പറഞ്ഞാൽ വിജയി മമ്മൂക്ക ഇവരെ രണ്ടുപേരെയും എനിക്ക് നേരിൽ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഷാറൂഖാനെ എനിക്ക് നേരിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇവരെ ഒക്കെ നേരിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇവരുടെ കൂടെ രണ്ട് ഫോട്ടോ എടുക്കണം പിന്നേ എനിക്ക് അ എനിക്ക് ഒരു ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഇപ്പോൾ എനിക്ക് മമ്മൂക്കയുമായിട്ട് സിനിമയുടെ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് സി മമ്മൂക്കയുമായിട്ട് മാത്രമല്ല എല്ലാ ആക്റ്റേഴ്സുമായി എനിക്ക് ഈ ഞാൻ പറഞ്ഞ ആക്റ്റേഴ്സുമായിട്ടൊക്കെ എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഇത്രയാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് എന്തുകൊണ്ട് എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അവരോട് എനിക്ക് ഒരുപാടിഷ്ടമാണ് അവരുടെ സിനിമകളാണെങ്കിലും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്